സ്മാർട്ട് ഫോണുകൾടെ ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ കുറെ ഈസ് ഉണ്ടാക്കീട്ടുണ്ട് കുറെ കാര്യങ്ങൾ നല്ലതായിട്ടുണ്ട് എന്നാൽ കുറെ കാര്യങ്ങൾ ചീത്തയായിട്ടും ഉണ്ട് സ്മാർട്ട് ഫോണുകൾ ജീവിതം കുറെ കൂടെ എളുപ്പം ആക്കിയെന്ന് വേണം എങ്കിൽ നമുക്ക് പറയാം എല്ലാ സൗകര്യങ്ങളും നമ്മുടെ വിരൽ തുമ്പിൽ എത്തുന്ന ഒരു അവസ്ഥയാണ് സ്മാർട്ട് ഫോണുകളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് സ്മാർട്ട് ഫോണുകളിലൂടെ നമുക്ക് എത്ര ദൂരത്തുള്ളവരും ആയിട്ടും കോണ്ടാക്ട് ചെയ്യാനും എത്ര അടുത്ത് ഉള്ളവരെ പോലെ ഇടപഴകാനും സാധിക്കുന്നു ദൂരം കുറയ്ക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇവർ ചെയ്തിട്ടുള്ളത് ദൂരം കുറയ്ക്കുകയും ബന്ധങ്ങൾ കുറച്ചൂടെ മെച്ചപ്പെടുത്തുകയും ചെയ്തു ആക്ഷ് കുറെ നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിലും കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളും നമുക്ക് ഇതിലുണ്ട് ദൂരം മെച്ചപ്പെടുത്തി സ്മാർട്ട് ഫോണുകൾ എല്ലാം നമ്മൾ നിത്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരു വിരൽ തുമ്പിലവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാർണവന്മാർക്ക് ആണേലും മക്കളുമായിട്ട് സംസാരിക്കാൻ ദൂരെയുള്ള മക്കൾ ആയിട്ട് സംസാരിക്കുന്നത് കണ്ടു സംസാരിക്കാനോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനോ എല്ലാ അവസരങ്ങളും ഉണ്ട് അവർ ഒരു വീട്ടിൽ ഉള്ളവരെ പോലെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യം ഉള്ള സാധനങ്ങൾ മേടിക്കണെങ്കിൽ പോലും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അതിലുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പഠിക്കണം എങ്കിൽ നമുക്ക് പണ്ടത്തെ പോലെ ലൈബ്രറി ബുക്സ് റെഫർ ചെയ്യുവോ അല്ലെങ്കിൽ വിദഗ്ദരായവരുടെ പഠനങ്ങൾ കണ്ടുപിടിച്ച് പഠിക്കുകോ ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല ഒരു വീട്ടിലിരുന്നോണ്ട് ഇപ്പം വീട്ടമ്മ ആയാലും പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ആരാണെങ്കിലും വർക്ക് ചെയ്യുന്നവർ ആണെങ്കിലും ആരാണെങ്കിലും ഫോൺൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴ്ത്തേക്കും നമുക്ക് ആവശ്യമായ ഡേറ്റാസ് അപ്പം തന്നെ നമുക്ക് കിട്ടുന്നു ഒരു സെക്കൻഡ് പോലും വ്യത്യാസം ഇല്ലാതെ നമുക്ക് കിട്ടുന്നു അതെന്നെ ഏറ്റോം വലിയ ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻ്റും ലൈഫിലുണ്ടാക്കാൻ ഏറ്റോം ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് സ്മാർട്ട് ഫോണുകളുടെ അല്ലെങ്കിൽ എത്ര സ്മാർട്ടായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ സഹായം കൊണ്ട് നമുക്ക് പറ്റീട്ടുള്ളത് നിസാര സമയം കൊണ്ട് വളരെ കാര്യങ്ങൾ പഠിക്കുവാനും വളരെ കാര്യങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്യുവാനും ഒക്കെ അത് ഉപകാരപ്പെട്ടിട്ട് ഉണ്ട് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല പല കാര്യങ്ങളും ഇപ്പോൾ ഇപ്പോൾ ഒരു ഊബറ് ഒരു ടാക്സി ബുക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഫോൺലാണ് ചെയ്യുന്നത് പണ്ടൊക്കെ കുറെ ഇങ്ങനെ ട്രാവൽ ഏജൻസികൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയൊക്കൊയിരുന്നു നമ്മൾ ചെയ്യുന്നു ഇപ്പം നമുക്ക് വീട്ടിലിരുന്നോണ്ട് തന്നെ വൺ ട്രെയിനോ ബസ്സോ പ്ലെയിനോ എന്ത് വേണേലും ബുക്ക് ചെയ്യാം സീറ്റ് റിസർവ് ചെയ്യാൻ എന്ത് വേണേലും ചെയ്യാം പിന്നെ ഇപ്പോൾ സ്കൂ ളിൽ കാര്യങ്ങൾ പോലും കുട്ടികൾ സ്കൂ വീട്ടിൽ ഇരുന്നോണ്ടാണ് അറിയുന്നത് മെസ്സേജുകളിലൂടൊന്നും ഇപ്പം നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ആണെങ്കിൽ പോലും ഒരേ സമയത്ത് തന്നെ നമുക്ക് പലർക്കും മെസ്സേജയക്കാം ഇല്ലേ ഒരു കോൾ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആർക്ക് വേണേൽ ആരോട് വേണേലും ചാറ്റ് ചെയ്യാം എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് പിന്നെ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഷോപ്പ്ന്ന് നമുക്ക് ഒരു സാധനം മേടിക്കും ഷോപ്പി പോയി അല്ലെങ്കിൽ ഇവിടെ ഇപ്പം നമ്മുടെ പ്രാദേശിക സ്ഥലത്ത് കിട്ടില്ലാത്ത പല സാധനങ്ങളും നമുക്ക് നിമിഷ നേരം കൊണ്ട് നമുക്ക് ഇവിടെ വരുത്തിക്കാവുന്നതാണ് ഉള്ളത് അതിനുള്ള ആപ്പുകളുണ്ട് അതിൽ നമ്മൾ ഓർഡർ ചെയ്യമ്പോൾ ഡെലിവറി ബോയ്സ് നമുക്ക് കൊണ്ട് തരുന്നു അങ്ങനെ ഭയങ്കര ജീവിതം കുറെ കൂടെ ഈസാക്കിട്ടാണ് ഉള്ളത് അതുകൊണ്ട് സ്മാർട്ട് ഫോൺസ് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ കുറെ ഒക്കെ ഡ്രോബാക്കുകളും ഉണ്ടതിന്

സ്മാർട്ട് ഫോൺസ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം അപ്പം പണ്ടൊക്കെ ഈ വർക്ക് ഫ്രം ഹോംന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു ഇപ്പോൾ ഇതിൻ്റെക്കെ സാങ്കേതിക വിദ്യകളുടെ നൂതനമായ പരീക്ഷണങ്ങൾ മൂലം വീട്ടിലിരുന്ന് തന്നെ വർക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെ അതായത് അങ്ങനെ ഒരു ഏരിയേൽ വർക്ക് ചെയ്യുന്നവർക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ജോബ് ചെയ്യാവുന്നതാണ് സ്മാർട് ഫോൺസ് കുറെ കാര്യങ്ങളിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു